അന്താരാഷ്ട്ര യോഗ ദിനം പോലുള്ളവ യോഗയെ സഹായിച്ചിട്ടുണ്ടോ എങ്ങനെയെന്ന് ചോദിച്ചാൽ സഹായിച്ചിട്ടുണ്ട് എന്നതാണ് എൻ്റെ അഭിപ്രായം എല്ലാ വർഷവും ജൂൺ ജൂൺ മാസം ഇരുപത്തി ഒന്നാം തീയതി അന്താരാഷ്ട്ര യോഗ ദിനമായി ആ ആഘോഷിക്കുന്നു യോഗയെന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ ശാരീരികവും മാനസികവുമായിട്ടുള്ള ഒരു ഫ്രഷ്നെസ്സിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാർഗ്ഗമാണ് ശരീരവും മനസ്സും ഏകീകരിച്ച് ചെയ്യുന്ന ഒരു പരിശീലന ക്രമമാണ് യോഗ എന്നു പറയുന്നത് അന്താരാഷ്ട്ര യോഗ ദിനത്തോട് അനുബന്ധിച്ച് യോഗയുടെ പ്രാധാന്യം മനസ്സിലാക്കുന്നതിന് യോഗ എല്ലാവരും ചെയ്യുക എന്ന ഉദ്ദേശത്തോടും കൂടിയാണ് ഈ യോഗ ദിനം ആഘോഷിക്കുന്നത് അതിനെ പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള പ്രമുഖ വ്യക്തികൾ ആ ദിവസം യോഗ ചെയ്യുകയും അത് മറ്റുള്ള ആൾക്കാർക്ക് ഒരു ബോധവത്ക്കരണം എന്ന രീതിയിൽ വിവിധ ചാനലുകളിലൂടെ പ്രക്ഷേപണം ചെയ്യുകയും ചെയ്യുന്നു സ്കൂളുകളിലെ മിക്കവാറും എല്ലാ സ്കൂളുകളിലും യോഗ ഒരു കോകരിക്കലർ ആക്ടിവിറ്റിയായിട്ട് തന്നെ ചെയ്യുന്നുണ്ട് യോഗ എന്ന് പറയുന്നത് പൊതു ഒരുപാട് ആസനങ്ങളും ഒക്കെ ചേർന്ന ഒരു ഒരു എക്സർസൈസാണ് ഇത് പരിശീലിപ്പിക്കുന്നതിന് വിദഗ്ധരായ അധ്യാപകർ ഇന്ന് നിലവിലുണ്ട് കൂടാതെ മാധ്യമങ്ങളിലൂടെയും ധാരാളം യോഗയുടെ ട്രിക്കുകൾ പ്രയോജനം സംപ്രേക്ഷണം ചെയ്യുന്നുണ്ട് കുട്ടികളിലെ യോഗ കുട്ടികളിലും മുതിർന്നവരിലും യോഗ വളരെയെറെ പ്രധാനപ്പെട്ടതാണ് പലതരത്തിലുള്ള അസുഖങ്ങൾ മാറുന്നതിനും അതുപോലെ തന്നെ മനസ്സിനും ശരീരത്തിനും ഉന്മേഷം നൽകുന്നതിനും യോഗ വളരെയേറെ സഹായിക്കുന്നു ഒരു മനുഷ്യൻ്റെ തലച്ചോറ് മുതൽ പാദം വരെയുള്ള എല്ലാ നാഡീ ഞരമ്പുകളുടെയും വികാസം ഇതിലൂടെ നടപ്പിലാകുന്നു അതുപോലെ തന്നെ ശ്വസനക്രമം അതുപോലുള്ള അസുഖങ്ങൾ ശ്വസനക്രമം ക്രമപ്പെടുത്തുന്നതിലൂടെ ധാരാളം ശ്വാസകോശം സംബന്ധമായ അസുഖങ്ങൾ മാറുന്നതിനും മനുഷ്യനെ ഏകാഗ്രത വർധിപ്പിക്കുന്നതിനും യോഗ സഹായിക്കുന്നു അന്താരാഷ്ട്ര യോഗദിനം യോഗയെ യോഗയെ യോഗയുടെ പ്രാധാന്യം ജനങ്ങളിൽ എത്തിക്കുന്നതിന് ഒരുപാട് ഒരുപാട് സഹായിച്ചിട്ടുണ്ട് ഒരു ദിനം ആഘോഷിക്കുക എന്നതിൽ ഉപരി എന്നത് എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ ഒരു ഉദാഹരണമായി പറഞ്ഞാൽ യോഗ ദിനം ആചരിക്കുകയാണെങ്കിൽ യോഗയുടെ പ്രാധാന്യം ജനങ്ങളിൽ എത്തിക്കുകയും യോഗ കൊണ്ടുള്ള ഗുണം എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കുയും അത് ശീലിപ്പിച്ചാൽ നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന മാറ്റങ്ങളെ കുറിച്ച് ഒക്കെ പരിശീലിപ്പിക്കുന്നതിനു വേണ്ടിയാണിത് ചെയ്യുന്നത് മാനസികമായ പിരിമുറുക്കം കുറയ്ക്കുകയും രക്തസമ്മർദം അതുപോലെ തന്നെ രക്താതിസാരം രക്താതിസാരം രക്താതിസാരം മുതലായ രോഗങ്ങളിലൊക്കെ രോഗങ്ങളിൽ നിന്നൊക്കെ നമുക്ക് രക്ഷ നേടുന്നതിന് യോഗ വളരെയേറെ സഹായിക്കുന്നു ശരീരത്തിൽ അമിതമായുണ്ടാകുന്ന കൊഴുപ്പ് കുറയ്ക്കുന്നതിനും ബ്ലഡ് പ്രഷറ് മുതലായവ നിയന്ത്രിക്കുന്നതിനുമൊക്കെ യോഗ വളരെയേറെ സഹായിക്കുന്നു വിവിധ തരത്തിലുള്ള രോഗങ്ങളാൽ കഷ്ടപ്പെടുന്നവർക്ക് ഒരു ആശ്വാസമെന്ന നിലയിൽ യോഗ വളരെയേറെ സഹായിക്കുന്നു രാവിലെ അതിരാവിലെ ചെയ്യുന്ന സൂര്യനമസ്കാരവും അതുപോലെ ശീർഷാസനവും ചക്രാസനവുമൊക്കെ യോഗയിലെ ആ പ്രധാനപ്പെട്ട ഒരു പ്രധാനപ്പെട്ട ട്രിക്കുകളാണ് അപ്പോൾ ഇവയൊക്കെ പരിശീലിപ്പിക്കുന്ന പരിശീലിക്കുന്നതിലൂടെ മനുഷ്യനെ ഏകാഗ്രത വർധിപ്പിക്കാൻ സഹായിക്കുന്നു ഈ ഏകാഗ്രത വർദ്ധിപ്പിക്കുന്നതിലൂടെ മനുഷ്യൻ മനുഷ്യൻ്റെ ബൗദ്ധികമായ വികാസനത്തിനുമൊക്കെ യോഗ വളരെയേറെ സഹായിക്കുന്നു അതുകൊണ്ട് യോഗ യോഗ എന്നു പറയുന്ന ഒരു അന്താരാഷ്ട്ര യോഗ ദിനം ആചരിക്കുന്നതിലൂടെ യോഗയുടെ പ്രാധാന്യം എല്ലാവരിലും എത്തുന്നു അത് ചെയ്യുന്നതിനും അതിനു വേണ്ടി പ്രവർത്തിക്കുന്നതിനും മറ്റുള്ളവരെ ചെയ്യാൻ സഹായിക്കുന്നതിനും പ്രമോട്ട് ചെയ്യുന്നതിനുമൊക്കെ യോഗാദിനം വളരെയേറെ സഹായിക്കുന്നു